മറ്റു ഭാഷകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയാള ബാഷ പഠിക്കാനായിട്ട് ഇച്ചിരെ ബുദ്ധിമുട്ടാണെന്ന് മറ്റ് ഭാഷക്കാർ പറയുന്നു മലയാള ഭാഷക്കാർക്ക് മറ്റു ഭാഷകൾ പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ ചില വാക്കുകളൊന്നും ചിലർക്ക് വഴങ്ങുകേല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഭാഷ ഇപ്പം സംസാരിക്കാനായിട്ട് പെട്ടെന്ന് പഠിക്കാം പക്ഷെ എന്നാലും ചിലർക്ക് എഴുതാനും ഒക്കെ മലയാളഭാഷ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാ പറയുന്നത് പക്ഷെ മലയാളികൾക്ക് മലയാള ഭാഷയാണ് ഏറ്റവും പഠിക്കാനും എഴ്താനും എല്ലാം എളുപ്പം പറ്റുന്നത് മറ്റ് ഭാഷകളെ പ്രത്യേകിച്ച് തമിഴ് പഠിക്കും ഇംഗ്ലീഷ് പഠിക്കും ഹിന്ദിയെക്കെ നമ്മൾ നമ്മുടെ മലയാളികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഠിക്കും മറ്റ് ഭാഷകൾ ഈ അറബി ഭാഷ അങ്ങനെ ഉള്ള പിന്നെ നമ്മുടെ ഈ മറ്റ് ഇംഗ്ലീഷ് നമ്മൾ പറയുമെന്ന് പറഞ്ഞാലും ഇംഗ്ലീഷ്ക്കാർക്ക് നമ്മുടെ അവരുടെ എന്താ അവരുടെ ആ പ്രനൗൻസേഷൻ ഒക്കെ വേറെ ആയതുകൊണ്ട് നമുക്ക് അവരുടെ ഒന്നും നമുക്ക് മനസ്സിൽ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് ങ്ങാ ങ്ങൂന്ന് വെച്ച്ന്നും അവർ അങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മളത് തള്ളിക്കളയും നമുക്ക് ഇഷ്ടമില്ല അവരുടെ സംസാരം കേൾക്കാൻ നമുക്ക് അപ്പഴും മലയാളം തന്നെ എവിടെയെങ്കിലും പോയാൽ ദൂര യാത്രയൊക്കെ പോവുമ്പഴത്തേക്കും ഒരു മലയാളം പറയുന്ന ഒരാളിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം ആയിരിക്കും മലയാളം പറയുന്ന ഒരാളിനെ കിട്ടിയല്ലോ മലയാളം പറയാമല്ലോ നമ്മൾ പിള്ളേർ ഇപ്പം മലയാളം പറയുന്ന പിള്ളേർ ഇപ്പം ഇല്ല ഇവിടെ പോലും എല്ലാം ഇംഗ്ലീഷ് ആണ് പറയുന്നത് പിന്നെ നമ്മുടെ ഭാഷ നമുക്ക് വലുതാണ് നമുക്കത് കൂടുതൽ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു നമ്മുടെ ഭാഷ ഏറ്റവും നല്ല ഭാഷയാണെന്ന് നമ്മൾ പറയും മറ്റുള്ളവർ നമ്മുടെ ഭാഷയെ ബുദ്ധിമുട്ടാ അല്ലെ അങ്ങനാ ഇങ്ങനാ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ വളരെ ഈസിയാണ് അത് പഠിക്കുന്നതിനും എഴുതുന്നതിനുമൊക്കെ വളരെ ഈസിയാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനും അത് എളുപ്പമാണെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാം കൊണ്ടും നമുക്ക് നമ്മുടെ മലയാള ഭാഷയെ കൂടുതൽ സ്നേഹിക്കാം